മലയാള ഭാഷ എന്നു പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് അത് സാധാരണ രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരാളുടെ അഭിപ്രായം ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അതിൽ ഗ്രാമറൊ അക്ഷരത്തിലെ വടിവോ ഭാഷയുടെ ശൈലിയൊ ഒന്നും കാണുകയില്ല അത് സാധാരണ രീതിയിൽ പറയുന്ന സംസാരിക്കുന്ന ഒരു ഭാഷ മാത്രമാണ് എന്നാൽ നമ്മൾ റേഡിയോയിൽ ടീ വിയിൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പല മീഡിയ മീഡിയകളിൽ നമ്മൾ കേൾക്കുന്നത് അത് വളരെ രസകരമായ രീതിയിൽ ഫലിതത്തോട് കൂടി നമ്മളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു ടീ വി ടീ വി ചാനലിലോ അല്ലെങ്കിൽ റേഡിയോയിലോ ഇത് പരസ്യപ്പെടുത്തി മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ഈ ടീ വികളിലും റേഡിയോയിലും ഒക്കെ ഈ പരിപാടികൾ ചെയ്യുന്നത് അതുപോലെതന്നെ രസകരമായ രീതിയിൽ അതിൻ്റെ പല തമാശകളും മറ്റും ഉൾപ്പെടുത്തി അതായത് ഒരു വാർത്ത കേട്ടാൽ അതിനെ മറ്റുള്ളവർക്ക് മുഷിച്ചൽ വരാത്ത രീതിയിൽ അതുപോല തന്നെ ഒരു പ്രസംഗം കേട്ടാൽ അത് കേൾക്കുന്ന മണിക്കൂറുകൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ മുഷിയാതെ ആദ്യം മുതൽ അവസാനം വരെ അത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാകണമെങ്കിൽ ആ ഭാഷാശൈലിയാണ് മാറ്റം അല്ലെങ്കിൽ കണ്ടൻ്റ് അതിനകത്ത് ഉൾക്കൊളിക്കുന്ന കാര്യങ്ങൾ വിഷയമെന്തു തന്നെയായിരുന്നാലും അതിനെ പറഞ്ഞ് ധരിപ്പിക്കുന്നതിനുള്ള കഴിവ് ആണ് ഒരു ഭാഷ എന്നു പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ കേരളത്തിലെ ആൾക്കാർ വളരെ ഭംഗിയായി അന്ന് കൂടുതലായി പറയുന്നത് വിദ്യാഭ്യാസം കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ കേരളം കേരളത്തിലെ വിദ്യാഭ്യാസ രീതി അതിനോട് കുട്ടികൾക്കുള്ള താല്പര്യവും ഒക്കെ നമ്മുടെ ഈ ഭാഷയുടെ കൂടെ വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പോൾ ഒരു ഭാഷയെ മലയാളഭാഷയെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതായത് ഇതിന് വളരെ പ്രയോജനപ്പെടുന്നൊരു ഭാഷകൂടിയാണ് അതായത് നമ്മുടെ മക്കളൊക്കെ അല്ലെന്നും വരില്ലേ ഇപ്പോഴത്തെ കുട്ടികൾ കേരളത്തിൽ സ്ഥിരമായി നിൽക്കാൻകൂടി ആഗ്രഹിക്കുന്നില്ല അവർക്ക് മലയാളഭാഷ ബുദ്ധിമുട്ടായിവരികയാണ് അവർ വടക്കേ ഇന്ത്യയിലോ വിദേശങ്ങളിലോ ഉപജീവനമാർഗ്ഗം തേടി പോയി അവരുടെ മക്കൾ അവിടെ ജനിക്കുന്നു അവരവിടെ സ്ഥിരമായി താമസിക്കുന്നു അവരുടെ കുട്ടികളെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ മലയാളം കൂടി സംസാരിക്കാനറിയാൻ പാടില്ലാത്ത ഒരു രീതിയിലാണ് അവർ വളർന്നു വരുന്നത് അപ്പോൾ നമ്മുടെ ഭാഷ നമ്മുടെ കയ്യിൽനിന്ന് കുറേശ്ശെ കുറേശ്ശെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്